ആധുനികകാല പാചകവും പഴയകാല പാചകവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് പഴയകാല പാചകമായിരുന്നു എന്ന് പറയാൻ സാധിക്കും പഴയകാല പാചകമെന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പൊടികളും ഒക്കെ ഉപയോഗിച്ചായിരുന്നു പാചകം കല്ലിൽ അമ്മിക്കല്ലിൽ അരച്ചും പൊടിച്ചുമൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേകതരം ടേയ്സ്റ്റ് തന്നെയുണ്ട് ഇന്നത്തെ തലമുറ അതെല്ലാം നമ്മൾ എന്താണ് യന്ത്രവൽക്കരണമായിത്തീർന്നു എന്നുവേണമെങ്കിൽ പറയാം നമ്മളുണ്ടാ ക്കുന്ന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷിന് ഒരുപാട് സ്വാദ് കൂട്ടുന്നതിനുവേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ഒരുപാട് ഉപയോഗിക്കുന്നു അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ദോഷകരമാണ് എന്നാൽ ഇന്നത്തെ ഒരു ആധുനികകാലത്തെ ഒരു വാചകത്തിൽ ഉൾപ്പെടുത്താതെ ഒന്നുംതന്നെ സാധിക്കുകയില്ല വെജിറ്റബിൾസിൽ പോലും അത് പാചക നമ്മൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ട് വന്നാൽ തന്നെയും എന്ത് ചെയ്യുന്നു അത് പെട്ടെന്ന് തന്നെ കേടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലും കെമിക്കൽസ്സ് ഉപയോഗിച്ചാൽ മാത്രമേ അത് നല്ല ഫ്രഷ്നെസ്സോടു കൂടിയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ അത്കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പച്ചക്കറിയാണ് വാങ്ങി എന്ത് ചെയ്യുന്നത് നമ്മൾ പാചകം ചെയ്യുന്നത്പോലും അതിൽ തന്നെ ഒരുപാട് നമ്മടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് എന്നാൽ പഴയകാല പാചകം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തനതായ രീതിയിൽ കൃഷി ചെയ്ത് അതുകൊണ്ട് പാചകം ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ് നമുക്ക് നമുക്കുതന്നെ അറിയാം ഇപ്പോൾ തന്നെ ഒരു പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരു ഒരാൾ ജീവിക്കുന്നതും ഇന്നത്തെ തലമുറയിൽ ഒരു പത്ത് മുപ്പത് വയസ്സായ ഒരാൾ ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്കത് മനസിലാക്കാൻ കഴിയും പണ്ടത്തെ ആഹാരരീതിയാണ് അവരെ അത്രയും കാലം എന്ത് ചെയ്യുന്നത് ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ അവർക്ക് കഴിയ്യുന്നത് എന്നാൽ ഇന്നത്തെ തലമുറ പെട്ടെന്ന് എന്താണ് സൈലന്റ് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ വന്ന് പെട്ടെന്ന് മരണമടയുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരരീതിയുടെ ഒക്കെ പ്രശ്നംകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസിലാക്കാം അതുകൊണ്ട് എപ്പോഴും പഴയകാല പാചകരീതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു നല്ലതാണ് ആധുനികകാലത്ത് നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു ഇതായതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു ആ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു